അപ്പം ഞങ്ങളുടെ പ്രദേശത്ത് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കൂടുതലായിട്ടും പകർച്ച വ്യാധികളാണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് കാരണമെന്ന് വെച്ചു കഴിഞ്ഞാല് ഇപ്പം ഒന്നാമത് എല്ലാരും വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ റോഡ് സൈഡിലും നമ്മുടെ ഇപ്പം സ്ഥലങ്ങളിലും അതായത് അന്യരുടെ സ്ഥലങ്ങളിലൊക്കെ നിക്ഷേപിച്ചു പോകുന്ന അങ്ങനത്തെ കാര്യങ്ങള് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അവിടത്തെ ഒരോ കീടാണുക്കള് കാര്യങ്ങളൊക്കെ എന്താ പറയുക പകർന്ന് അങ്ങനെ എന്താ പറയുക ഓരോ ആൾക്കാരിലേക്ക് പകർന്ന് അങ്ങനെ വ്യാപിക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് എലിപ്പനി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ കൂടുതലായിട്ടും ഈ മഴ ടൈമിലാണ് കൂടുതലായിട്ടും പകർച്ച വ്യാധികള് പൂർണ്ണമായിട്ടും വരുന്നത് വേണെമെങ്കിൽ പറയാം കാരണം മഞ്ഞപ്പിത്തം അങ്ങന പല രീതിയിലുള്ള അസുഖങ്ങള് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടത് പിന്നെ ഇപ്പോൾ ഇപ്പം എന്താ പറയുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് പോഷക ആഹാര കുറവ് കൊണ്ടും വരുന്നുണ്ട് പിന്നെ ഈ നമ്മളിപ്പം വാക്സിന് കാര്യങ്ങളൊക്കെ എടുത്തില്ലെങ്കിലും ഇങ്ങനത്തെ അസുഖങ്ങള് വരുന്നുണ്ട് അപ്പം അതൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്